ഹീറ്റർ ഇപ്പോൾ ഞാൻ സാധാരണ എന്താണ് പറയുക ഇപ്പോൾ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാധനം മേടിച്ചത് അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രോഡക്റ്റ് മേടിച്ചത് അപ്പോൾ മേടിച്ച ടൈമില് ഇത് നല്ല ഒരു ഉപകാരമായിട്ടാണ് തോന്നിയത് കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇത് സ്വിച്ച് ഓൺ ആക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു പത്ത് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം ചൂടാവുകയും അപ്പം എനിക്ക് കുളിക്കാനൊക്കെ വെള്ളം പെട്ടെന്ന് തന്നെ റെഡി ആവുവൊക്കെ ചെയ്തിരുന്നു അപ്പം നമുക്ക് അതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു കാരണം എനിക്ക് ഉപയോഗിച്ച് കൊണ്ടിരുന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം നമ്മൾ രാവിലെ എന്താണ് പറയുക രാവിലെ തന്നെ വിറകൊക്കെ വെട്ടിയൊടിച്ച് അടുപ്പിൽ വെള്ളം ചൂടാക്കുന്നതിലും എത്രയൊ എളുപ്പമാണ് ഇതിൻ്റെ പരിപാടി അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം ഒക്കെ നമുക്ക് ചൂടാക്കി കിട്ടുവൊക്കെ ചെയ്തിരുന്നു പിന്നെ നോക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത് കാരണം ഇലക്ട്രിസിറ്റി ബിൽ ഒക്കെ നമുക്ക് വല്ലാണ്ട് കൂടാൻ തുടങ്ങി കാരണം നമുക്ക് കറണ്ടിലാണ് ഇത് പ്രവൃത്തിപ്പിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ട് നമുക്ക് ഇത് മെക്കാനി ഇതിൻ്റെ മെക്കാനിക്കിനെ ഒക്കെ വിളിച്ച് റിപ്പയർ ചെയ്യാനൊക്കെ നല്ല എമൗണ്ട് കയ്യിൽ നിന്ന് പോവാൻ തുടങ്ങി അപ്പോൾ നല്ല ചിലവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ എന്താണ് പറയുക ക്യാഷ് വല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇതിനെ പറ്റി എനിക്ക് നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് അതാണ്